ഹലോ അഡ്രിയാൻ ആണോ ഹലോ അഡ്രിയാൻ കഴിഞ്ഞ ദിവസത്തെ ടൂർണമെന്റിന് ങാ അതേല്ലോ അതേല്ലോ ഓക്കെ ഓക്കെ കഴിഞ്ഞ ദിവസം ടൂർണമെൻറ്റിന് കളിച്ചപ്പോൾ ഒരു നിലവാരം ഇല്ലാത്ത പെർഫോമൻസാണല്ലോ കാഴ്ച വെച്ചത്

ഓ ഓക്കേ ആ ഓക്കേ

പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ നമ്മളെ നമ്മുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതനുസരിച്ചല്ലേ നമുക്ക് ഈ എന്ന പ്രൊഫഷൻ നമുക്ക് നില നിർത്താൻ പറ്റുകയുള്ളൂ ആ പക്ഷെ പക്ഷേ ഇതൊന്നും ഒരു കാരണങ്ങൾ അല്ലല്ലോ ഇപ്പോൾ നമ്മൾ ശരിയാണ് വീട്ടിലെ കാര്യം വിട് പക്ഷേ വീട്ടിലെ പക്ഷേ വീട്ടിലെ ഇതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇന്നീ പ്രൊഫഷനിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് കിട്ടുന്ന ഈ ഫണ്ടും കൊണ്ടാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു നിലവാരത്തിലല്ലേ വന്നത് പക്ഷേ പക്ഷേ അതിനുള്ള ഒരു ഇത് കാണിച്ചുമില്ലല്ലോ കഴിഞ്ഞ ദിവസം ഓക്കെ ഓക്കെ ഓക്കെ അല്ല പക്ഷെ നമ്മളിപ്പൊരു ടീമിൽ നമ്മളിപ്പൊരു നമ്മളിപ്പൊരു ടീമിൽ കളിക്കുന്നതു കൊണ്ടു ടീമിൻറ്റകത്ത് പറയാമല്ലോ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എല്ലാവരും കൂടി ഒന്ന് ചെയ്യാമോയെന്ന് ടീമിനകത്തു പറയുകയാണെങ്കിൽ നമുക്കവിടൊരു ഇത് വരുമല്ലോ പക്ഷെ ഫുഡ്ഡിൻ്റെ കാര്യമൊന്നും കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്നില്ലെന്നു തോന്നുന്നല്ലോ ഫിറ്റ്നസ്സിന് ആ വീട്ടിൽ ഓ പക്ഷേ ഫുഡ്ഡിൻ്റെ കാര്യം നല്ല പോലെ നോക്കിയാലെ നമുക്കതിനുള്ള എനർജി കിട്ടുകയുള്ളു പക്ഷെ ആ കാര്യം നിങ്ങൾ മറന്നു പോകുന്നുണ്ട് പിന്നെ ഡയറ്റ് ഡയറ്റ് മെയിൻ്റെയിൻ ചെയ്യണം ഈ മറ്റേ കോക്കൊക്കെ കഴിക്കുന്നത് നോക്കിയും കണ്ടുമൊക്കെ വേണം കോള മറ്റേ കൊക്കോകോള അങ്ങനെയുള്ള പിന്നെ ഭക്ഷണങ്ങളില്ലേ ആ അത് കുറയ്ക്കണം അത് കുറച്ചില്ലെങ്കിൽ നമ്മുടെ പക്ഷെ അതിൻ്റകത്തു നിന്ന് നമുക്ക് ഒരു ആ പക്ഷെ അതിനുള്ള ഒരിത് വേണമല്ലോ എല്ലാം അറിയാം പക്ഷെ ഇങ്ങേരങ്ങ് പ്രവർത്തിക്കുന്നില്ല അതിലേക്ക് അവന് അതാണ് നമുക്കറിയേണ്ടെ ഇപ്പോൾ കോച്ച് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം ഫുൾ എൻ്റെ തലയിലേക്കാണല്ലോ വരുന്നത് ഇപ്പോൾ മാനേജ്മെൻറ്റ് ആയാലും എന്നെ കുറ്റപ്പെടുത്തും നിങ്ങളല്ലേ ടീമെടുത്തത് എന്നിട്ട് നിങ്ങൾക്കറിയത്തില്ലേ ഇത്രയും പേരെ ഇവനൊന്നും ചെയ്യുന്നില്ല പിന്നെന്തിനാണ് ഇവനെ ബലാൽക്കാരമായി വെച്ചു കൊണ്ടിരിക്കുന്നെന്ന് ആ പക്ഷെ ഇനിയെന്നാണ് മാച്ചുള്ളത് നെക്സ്റ്റ് അടുത്ത ദിവസം ആണല്ലേ അപ്പം അത് ഓ അപ്പം അതിനുള്ള പ്രാക്ടീസ് നിങ്ങൾ തുടങ്ങിയോ ഞാൻ അഡ്രിയാനെ വിളിക്കുന്നെന്നു പറഞ്ഞാലേ അഡ്രിയാൻ ആ ടീമിനകത്ത് കുറച്ചും കൂടി ഒരിതുണ്ട് അതു കൊണ്ടാണ് ഞാൻ അഡ്രിയാനെ എല്ലാ കാര്യത്തിലും വിളിച്ചു കോണ്ടാക്ട് ചെയ്യുന്നത് പക്ഷെ അഡ്രിയാൻ അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല

ഇമ്പ്രൂവ് ചെയ്യാനാണ് ഇമ്പ്രൂവ് ചെയ്തിട്ടേ നമുക്കതിനുള്ള ഉപകാരമുള്ളു അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചു ഒരു ഉപകാരം വരുന്നില്ലല്ലോ അതിൻ്റകത്ത് ആ ഇനി തൊട്ട് ശ്രദ്ധിക്കണം ഇനി അടുത്ത ദിവസം പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസിന് കറക്റ്റായിട്ട് വരണം അതു പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല പോലെ ചെയ്യാൻ നോക്കണം ആ ഓക്കെ ഓക്കെ അപ്പോൾ ശരിയെന്നാൽ ആ അടുത്ത ദിവസം അടുത്ത ദിവസം ശരിയെന്നാൽ